ആദ്യമേ നമ്മൾ വായന എന്ന് പറയുമ്പോൾ ഒരു ഭാഷയിൽ എഴുതുന്ന കാര്യങ്ങൾ അത് കാഴ്ച്ചയിലൂടെയോ നമ്മളുടെ സ്പർശ്ശനത്തിലൂടെയോ മനസ്സിലാക്കാവുന്ന ഒന്നാണ് വായന എന്ന് പറയുന്നത് വായന നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത അത്ര ആഴത്തിലൊന്നും എന്നിൽ വന്നിട്ടില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചില പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ ആകാംഷയും കൗതുകവും കൗതുകവും ഒക്കെ തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പുസ്തകപ്പുഴുവല്ല പക്ഷേ എനിക്ക് വായിക്കാൻ ഏറെ ഇഷ്ടമാണ് അതിൻ്റെ ചില പുറംചിട്ടകളായിക്കോട്ടെ പരിചിതമായ വ്യക്തികളുടെ മുഖങ്ങളായിക്കോട്ടെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് അത് വായിക്കണം അല്ലെങ്കിൽ അതിൽ എന്താണ് എന്നൊക്കെ എനിക്ക് ഏറെ കൗതുകമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ അതൊക്കെ വായിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന ഒരു ഇത് ഇഷ്ടമുള്ള ജോണർ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയില്ല എനിക്ക് ഏതും ത്രില്ലറായിക്കോട്ടെ പ്രണയ നോവലുകൾ യാത്രാവിവരണങ്ങൾ വായിക്കാൻ ഞാൻ അതൊക്കെ വായിക്കാനായിട്ട് എനിക്ക് വളരെ ഇഷട്ടമാണ് ഞാൻ അങ്ങനെ ഉള്ളതൊക്കെ വായിക്കാറുണ്ട് ഇന്ന ഒരു മേഖല ജോണർ ഞാൻ തിരഞ്ഞെടുക്കാറില്ല വായനയിൽ എല്ലാത്തരം നോവലുകളും കഥകളും ചെറുകഥകളും കവിതകളും ഒക്കെ വായിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരെണ്ണം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എങ്കിൽ പ്രണയനോവലുകളോട് ഭയങ്കര ഇഷട്ടമാണ് അത് വായിക്കാനായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക ഞാൻ ഈയിടെ വായിച്ചതെന്ന് പറയുമ്പോൾ ആദ്യം വായിച്ച എനിക്ക് അത് അതിലേക്ക് താൽപ്പര്യമുണ്ടാകാനായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബെഷീറിൻ്റെ കഥകൾ ഞാനേറെ വായിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബാല്യകാലസഖിയായിക്കോട്ടെ എല്ലാം എനിക്ക് ഭയങ്കര ബഷീറിൻ്റെ കഥകളോടെനിക്ക് വളരെ പണ്ടേയൊരു കൗതുകവും ഇഷ്ടമൊക്കെ കൂടുതലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കഥകളും കാര്യങ്ങളും ഒക്കെ ഞാൻ വായിച്ചിട്ടുള്ളയാളാണ് പിന്നെ മാധവിക്കുട്ടിയുടെ മാധവിക്കുട്ടിയമ്മയുടെ കഥകളായിക്കോട്ടെ കവിതകൾ നോവലുകളൊക്കെ ആയിക്കോട്ടെ എനിക്ക് ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണതൊക്ക വായിക്കാനായിട്ട് ചിലനേരം നമ്മളതിലൂടെയിങ്ങനെ അലിഞ്ഞ് നടക്കുന്നപോലെയൊക്കെത്തോന്നും അങ്ങനെ വായനയിലേക്ക് പോവുമ്പം അപ്പം ഈ ഈയിടെ വായിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ അഖിൽ പി ധർമ്മജനെഴുതിയ റാം കെയർ ഓഫ് ആനന്ദെന്ന് പറഞ്ഞൊരു പുസ്തകം അത് ആകസ്മികം എനിക്ക് വായിക്കണമെന്നൊരു ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ നമ്മുടെ ഫോണിലായിക്കോട്ടെ സ്റ്റാറ്റസ്സൊക്കെ ഇടുമ്പം അത് കാണുമ്പോഴെനിക്ക് അത് വായിക്കണമെന്ന് ഏറെ ആഗ്രഹമുണ്ടായിരുന്ന ഒന്നാണ് അങ്ങനെ ആകസ്മികമായെൻ്റെ അനിയൻ്റെ കയ്യിലത് കാണുകയും ഞാനത് വായിക്കുകയുമുണ്ടായി അതിൽ പേര് സൂചിപ്പിക്കുന്നതു പോലെത്തന്നെ റാമിന്റേയും അയാളുടെ ജീവിതത്തിൽ വരുന്ന ചിലരുടെയും കഥകളാണ് ആ ബുക്കിൽ കൊടുത്തേക്കണേ ആ കഥ വായിച്ച് തുടങ്ങുമ്പം തന്നെ നമ്മളും ആ കഥയിലൂടെ ഇതെന്നെത് അവരെവിടെയാണ് അല്ലെങ്കിലും ഓരോ കഥകളും ഞാൻ വായി വായിക്കുന്ന ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ ആ പ്രദേശം ആ നാട് ആ വ്യക്തികൾ അവരുമായിട്ട് ഞാൻ എനിക്കൊരു ബന്ധമുള്ളപോലെ അല്ലെങ്കിൽ അവരുടെകൂടെ ഞാനും പോകുന്നപോലെനിക്ക് തോന്നാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വായിച്ചപ്പോഴും ഞാനും ആ കഥാപാത്രങ്ങളോട് ചെന്നൈ എന്നു പറഞ്ഞ സങ്കേതത്തിലാവുകയും ആ കഥാപാത്രങ്ങളൂടെ അവരുരെ മാനസിക വികാരതലങ്ങളിലൂടെയൊക്കെ മാറ്റങ്ങൾ എനിക്കും ഉണ്ടാവുകയൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു ഒന്നാണ് റാം കെയർ ഓഫ് ആനന്ദെന്ന് പറയണത് ഞാൻ കുറച്ചൊക്കെ എനിക്കും എഴുതാനും വളരെ ഇഷ്ടമാണ് ഞാൻ എഴുതുമ്പോഴായിക്കോട്ടെ ഇതുപോലെ പ്രണയ നോവല് കഥകളോ അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ കഥകളൊക്കെ ഞാനെഴുതാറ് എന്നാലും ഇന്ന ഒരു സ്ഥലമെന്നെനിക്കില്ല ഇതും ത്രില്ലറായാലും ഡിറ്റക്റ്റീവ് നോവലുകൾ അതുപോലെയുള്ള എന്തുമായിക്കോട്ടെ എല്ലാം വായിക്കാനെനിക്ക് ഇഷ്ടമാണ്